ഹലോ ഞാനിവിടെ പുതിയതായിട്ട് തന്നെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ടൂറിസ്റ്റ് സ്റ്റേറ്റിന് ബുക്കു ചെയ്തിട്ടുണ്ടായിരുന്നു താങ്കളല്ലെ ആഹ്ഹ ആ അപ്പോൾ നമ്മൾക്ക് തുടങ്ങുകയല്ലേ ഇന്നെവിടേക്കാ നമുക്ക് പോവാൻ പറ്റുക ഞാൻ നല്ല എസ്സൈറ്റഡാ ആയിക്കോട്ടെ നെളില്ലിയാംപതി

ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ

ആ ഇല്ലയില്ലാ ആ പിന്നെയവിടെ ഫോട്ടോഗ്രാഫിക്കു പറ്റിയിട്ടുള്ള നല്ല പ്ലേസസ്സൊക്കെ ഇല്ലേ എനിക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ആ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ട് ആയിക്കോട്ടെ ശരി

ആ ഓക്കേ ശരി എന്നാൽ താങ്ക് യൂ അപ്പോൾ നാളെ നിങ്ങളെ രാവിലെ എട്ടുമണിക്ക് എന്താ അവിടെ ഹോട്ടലിൻറെ താഴെതന്നെ നിങ്ങൾ വരില്ലെ ആയിക്കോട്ടെ ഓക്കെ ശരി എന്നാൽ താങ്ക് യൂ ആ അതെ വൺ ഡേ ട്രിപ്പ് മൊത്തമുണ്ടായിരിക്കും പിന്നെ നിങ്ങൾ രാത്രിയൊരു ക്യാമ്പ് ഫയർ ഓർഗനൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിനെ പറ്റിയെനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു ആ അതുപിന്നെ ലോക്കൽസിൻറെ അടുത്താണോ ഉണ്ടാവുക നമ്മളവിടെ ആ ഹട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഹട്ട് അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ ഓക്കെ ആ അവിടെ ബാർബിക്യൂ അല്ലേ ഓക്കെ ശരി അപ്പോൾ പറഞ്ഞപോലെ അപ്പോൾ നാളെ രാവിലെ എട്ടു മണിയാകുമ്പോഴേക്കും നിങ്ങളെ നിങ്ങളെയൊക്കേ മീറ്റ് ചെയ്യാൻ വരാം കേട്ടോ

ആയിക്കോട്ടെ ഇല്ലേയില്ല കുറച്ചു മോഷൻ സിക്നെസ്സ് ഇടയ്ക്കുണ്ടാവാറുണ്ട് പക്ഷേ അതൊക്കെ കുഴപ്പമൊന്നൂല്ലാ ഞാൻ ടാബ്ലറ്റ്സ് കയ്യിൽ കരുതീട്ടുണ്ട് ആയിക്കോട്ടെ മ്മ് ശരി താങ്ക് യൂ